ഹലോ ഊബർ ടാക്സി സർവ്വീസ്സല്ലെ ഞാൻ കുറച്ച് നേരം മുമ്പ് ഒരു നാല് മണിയായപ്പോൾ ഒരൂ ഊബറ് ബൂക്ക് ചെയ്തിട്ടുണ്ടാരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ എനിക്കത് ക്യാൻസല് ചെയ്യണ്ടി വന്നു അപ്പം ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല അപ്പത് ക്യാൻസൽ ചെയ്യാനെന്താ ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞ് തരുവോ ആ ഓക്കേ അപ്പം അത് ക്യാൻസൽ ചെയ്തതിൻ്റെ റീഫണ്ട് അഡ്വാൻസ്സായിട്ട് മണി കൊട്ത്തിട്ടുണ്ടായിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എന്താ ചെയ്യേണ്ടത് റീഫണ്ട് റീഫണ്ടിന് എന്താ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്താൽ മതിയോ ഞാൻ ആ ഞാനക്കൗണ്ട് നമ്പറ് അയച്ച് തരാം ആ ഓക്കേ അത് മ മഴ മഴ വ പെയ്തൂല്ലോ അത് കാരണം പിന്നെ ഞാൻ പുവണ്ടാന്ന് വിചാരിച്ച് ഞാൻ സ്റ്റേ ചെയ്യാന്ന് വെച്ച് വീട്ടിൽ തന്നെ ഇരിക്ക്യാന്ന് വിചാരിച്ചു അതാണ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ആ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാട്ടോ